പോളിയോയിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പോളിയോ കൊടുക്കാൻ പോകുമ്പോൾ നല്ല ഹോസ്പിറ്റലിൽ നല്ല പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ കൊടുക്കാറുണ്ട് പിന്നെ അവിടെ വരുന്ന ഡോക്ടർമാർ നല്ല ഡോക്ടർമാരാണോയെന്ന് നോക്കിയിട്ടെ കൊടുക്കുകയുള്ളൂ അവർ പിന്നെ അവർ കൊടുക്കുന്ന ആ തുള്ളി മരുന്നിൻ്റെ എക്സ്പയറി ഡേറ്റും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട് ഒക്കെ ശ്രദ്ധിച്ചിട്ട് അവിടെ നിൽക്കുന്ന കോഡിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഹെഡ്ഡിനെ നിർത്തിയിട്ടുണ്ടാകും അപ്പോൾ അവരാണ് ഇതൊക്കെ നോക്കി നടത്തി കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ടാവുക അപ്പോൾ അവർ ശ്രദ്ധിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് പോകും അപ്പോൾ കുട്ടികൾക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ പോളിയോ കൊടുക്കുന്നതിന് മുൻപ് കുട്ടിക്ക് പനിയുണ്ടോ പനിയുണ്ടെങ്കിൽ നമ്മളിങ്ങനെ മരുന്നുകളൊന്നും കൊടുക്കാൻ പാടില്ല അപ്പോൾ പനിയുണ്ടോയെന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് അതിനു ഡോക്ടമാർ നോക്കാറുണ്ട് പനിയുണ്ടോയെന്നു നോക്കിയിട്ട് അതിനിട്ട് അതിനു ശേഷമായിരിക്കും കുട്ടിക്ക് കൊടുക്കുന്നത് പിന്നെ കുട്ടിയുടെ വെയ്റ്റ് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം നോക്കും എല്ലാം നോക്കിയതിന് ശേഷമാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് അങ്ങനെ തന്നെയാണ് പോളിയോയിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടവിടുത്തെ ആൾക്കാരൊക്കെ ചെയ്യുന്നത്